ഇപ്പോൾ ഹോട്ടലുകളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറില്ലാണ്ട് നടക്കില്ല കാരണമെന്താണെന്നു വച്ചു കഴിഞ്ഞാൽ എന്ത് സാധനവും നമ്മളിപ്പം ബില്ല് ചെയ്യണമെങ്കിൽ കമ്പ്യൂട്ടറാണ് ഇപ്പം കമ്പ്യൂട്ടർ യുഗമാണല്ലോ ഇപ്പോൾ ഉള്ളത് ഇപ്പം നമ്മൾക്ക് കമ്പ്യൂട്ടറിൽ എല്ലാം ഇപ്പം എ റ്റു സെഡ് സാധനവും കമ്പ്യൂട്ടറിൽ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് എല്ലാം ക്ലിയറായിട്ട് കിട്ടും ഇപ്പം ഹോട്ടലിലാണെങ്കിലും ഇപ്പം ഏത് ഒരു ഷോപ്പിലാണെങ്കിൽ തന്നെ കമ്പ്യൂട്ടറിലാണ് ബില്ല് ചെയ്യുക നമ്മളതിൻ്റെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തു കഴിഞ്ഞാൽ ബില്ലിങ്ങിൽ അതിൻ്റെ റേറ്റ് എത്ര കിലോ ഉണ്ട് എന്നൊക്കെ കറക്ടായിട്ടറിയും നമ്മളിപ്പം ഒരു ഷോപ്പിംഗ് മാളിൽ പോയാൽപ്പോലും അവിടെ എല്ലാ എ ടു സെഡ് സാധനവും ബില്ല് ചെയ്യുന്നത് കമ്പ്യൂട്ടറിലാണ് അപ്പം കമ്പ്യൂട്ടറും ഒരു നെറ്റും ഉണ്ടെങ്കിൽ അവിടുത്തെ എല്ലാ സാധനത്തിൻ്റേയും ലിസ്റ്റടക്കം നമുക്കിപ്പം എന്തെങ്കിലും സ്റ്റോക്കില്ലയെന്നു വരികയാണെങ്കിലും അതിനകത്തു നമുക്ക് കിട്ടും അപ്പം അങ്ങനെയാണിപ്പോൾ ഉള്ളത് ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നതും കമ്പ്യൂട്ടറാണ് മെയിനായിട്ട്